പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്